ഹലോ ഹോട്ടൽ അതേയതേയതേയതേ എന്തായിരുന്നു മാം യാ യാ യാ ഐ ഐ വിൽ എക്സ്പ്ളെയിൻ ഐ വിൽ എക്സ്പ്ളെയിൻ ഐ വിൽ എക്സ്പ്ളെയിൻ എന്നത്തേനായിരുന്നു മാഡം ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളത്തെ കഴിഞ്ഞിട്ട് സിംഗിൾ റൂമാണോ അതോ ഡബിൾ റൂമാണോ മാം എല്ലാ ഫെസിലിറ്റീസും വേണ്ടേ ഇവിടെ സ്വിമ്മിങ് പൂളുണ്ട് അതുപോലെ നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാഡം ഫാമിലിയായിട്ട് ഇവിടെ കിഡ്സിനുള്ള ഏരിയാസുണ്ട് അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ റേറ്റ് എന്നുപറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് വൺ ഡേ പെർ ഡേ ആ പെർ ഡേ ആ പെർ ഡേ ഫിഫ്റ്റീൻ തൗസൻഡ് വിത്ത് ഓൾ അക്കോമഡേഷൻ ആൻഡ് അസ്സിസ്റ്റൻസ് ഓൾസോ അസിസ്റ്റ് ഓൾസോ അതെയതെ അതെ മാഡം അതാണ് പറഞ്ഞത് അതെ അതാണ് പറഞ്ഞത് ഓൾ മാഡത്തിന് മനസിലാകുന്നില്ലെന്നു തോന്നുന്നു അതായത് കിഡ്സിനുള്ള ഏരിയയുണ്ട് അതുപോലെ നമുക്കിവിടെ പ്രൈവറ്റ് ആയിട്ടൊരു ഏരിയയുണ്ട് അതുപോലെ സ്വിമ്മിങ് പൂളുണ്ട് അതുപോലെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ് ലോകോത്തര നിലവാരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ലോകോത്തരനിലവാരം അതായത് ഹോട്ടൽസിനെ റേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഹോട്ടൽ സെക്കൻഡ് റാങ്ക് കീപ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു റാങ്ക് മാഡത്തിന് പ്രതീക്ഷിക്കാം യാ യാ യാ അല്ലാതെ ഞാൻ മാഡത്തിനോട് സംസാരിക്കത്തില്ലല്ലോ അല്ലേ ഓക്കേ മാഡം അന്നേരം ബുക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ടൊരു ഫൈവ് തൗസൻഡ് നൽകേണ്ടി വരുവേ ജിപേ ചെയ്താൽ മതി ഓക്കെ താങ്ക്യൂ ഫോർ കോളിങ് ഐ വിഷ് യു എ വണ്ടർഫുൾ ഡേ ആൻഡ് താങ്ക്യൂ ഫോർ വിസിറ്റിങ് അവർ ഹോട്ടൽ